നിയമപരമായ രേഖകൾ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ് കാരണം ഓരോ സ്ഥലത്തിന് അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് പത്തുസെന്റ് സ്ഥലമുണ്ടെങ്കില് അതിൻ്റെ നിയമപരമായ രേഖകൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ സ്ഥലം അയാളുടെ ആണോ അല്ലയോ എന്ന് ഉറപ്പാക്കലാണ്

അപ്പൊൾ തോന്നുന്നതാണ് സർക്കാരു ചെയ്യാ പട്ടയം കൊടുത്തു പട്ടയം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുക്കുന്നുണ്ട് അവർക്ക് പട്ടയം മാത്രമേയുള്ളു സ്ഥലം ഇല്ല അത് സർക്കാരിൻ്റെ തട്ടിപ്പു പരിപാടിയാണ് അങ്ങനെ നിയമപര അതിനു നിയമപരമായ രേഖകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നടക്കില്ല കാരണം ഒരു കാര്യത്തിൻ്റെ രേഖ ഒരു ആപ്പീസിലല്ല പല ആപ്പീസുകൾ കൂടിയാ അപ്പൊൾ ഈ പല ആപ്പീസുകൾ കുടി പല ഉദ്യോഗസ്ഥന്മാരുടെ ഐ എ എസ് ഐ പിഎസ് സർവ്വ ഉദ്യോഗസ്ഥന്മാരും ഇതിൻറെ ഇതിൽ ഉണ്ട് ഈ ഉദ്യോഗസ്ഥൻമാരിൽ കുടിട്ട് കാര്യങ്ങൾ ഒക്കെ നേടുവെന്ന് പറഞ്ഞാൽ കാണാൻ ഭയങ്കര പ്രയാസാ മറിച്ചു ഇത് ഒക്കെ ഓൺലൈനിൽ ആക്കിട്ടു ഒറ്റ രീതിയിൽ ആക്കിട്ട് ഒരു വ്യക്തിക്ക് അവൻ്റെ നിയമപരമായ രേഖകൾ സമ്പാദിക്കാൻ തു നൂറു നൂ നൂറുശതമാനവും ഓൺലൈനിൽ ആക്കാൻ എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള അനുഭവം അല്ലാതെ ഒരോ ആപ്പീസും കേറിയിറങ്ങിയാൽ അവനു ഈ ജന്മം ഒരു രേഖകളും കൃത്യമായി ഉണ്ടാക്കാനോ അത് കാത്തു സൂക്ഷിക്കാനോ അനുഭവിക്കാനൊ പറ്റില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ കാരണം കാരണമതിന് മെയിൻ പ്രശ്നം ആ സാധനം ആരുടേതാണ് എന്ന് കൃത്യമായി സർക്കാരിനുമറിയില്ല സർക്കാരിൻ്റെ കയ്യില് ഒരു രേഖയും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ രേഖ കളവുപോകും രേഖകൾ കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സർക്കാരിന് യാതൊരു വിധ ഇതും ഇല്ല അല്ലെങ്കിൽ ഒരു കഴിവും ഇല്ല പ്രാപ്തിയുമില്ല അതിലും രാഷ്ട്രീയപരമായ ആവശ്യങ്ങൾക്ക് ഈ രേഖകളൊക്കെ എടുത്ത് മറിച്ചു തരികിട കളിച്ചു ഇല്ലാതെയാകും അപ്പൊൾ ഒരു വ്യക്തിയുടെ രേഖകൾ ഇല്ലാതെയാക്കാനോ ഒരു വ്യക്തിയുടെ സ അപ് മുതലുകള് അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനോ അവനെക്കൊണ്ട് പറ്റാതെയാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊൾ ആകുല ഏതൊരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അയാൾക്ക് എത്ര സ്വത്ത് സമ്പാദിക്കാം അയാൾക്ക് ഈ സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കും ഇല്ല സ്ഥലം എം ൽ എ ആണെങ്കിൽ അയാൾക്ക് എന്തും ആകാം പാർട്ടി നേതാവാണെങ്കിൽ അവനും എന്തും ആകാം അവനേത് സ്ഥലവും കയ്യേറാം അത് റോഡ് ആയാലും ശരി നാട് ആയാലും ശരി കാട് ആയാലും ശരി അവര് അവനൊരു പട്ടയം കൊടുക്കും അവൻ്റെ പിന്നാലെ നടക്കും അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മണി അതിപ്പോൾ ചിന്നക്കനാലിലൊക്കെ എന്ന നടക്കുന്നെന്ന് ഉള്ള വിവരം അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴാ നമുക്ക് മനസിലാകുക അവിടെയുള്ള ഒരു സ്ഥലവും ഒരു വ്യക്തയുമില്ല അന്നാ അതൊന്നും സർക്കാരിൻ്റെയുമല്ല എന്ന ഇത് ആരുടേതാണെന്ന് കൃത്യമായി കണക്കും ഇല്ല പിന്നെ എന്താ ചെയ്യ അത്കൊണ്ട് നിയമപരമായ രേഖകൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇത് ആരുടെയാണ് ഉത്ഭവം എവിടെയാണെന്ന് കണ്ടെത്തണ്ടേ അടിത്തറ മനസിലാക്കിയാൽ മാത്രല്ലേ ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റു അതൊക്കെ പ്രയാസമുള്ള കാര്യമായിട്ട് കൊണ്ട് നടക്കാനാണ് സർക്കാരിന് താല്പര്യം ഇതിനെ ഏകീകരിക്കാനോ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് എന്നെന്നേക്കുമായി പരിഹരിക്കാനൊ ആർക്കും താല്പര്യോം ഇല്ല ഇതൊക്കെയാണ് ജീവിക്കാൻ പ്രയാസമുള്ള ഉണ്ടാകേണ്ട കാരണവും ഇതാണ്